വൈക്കം മുഹമ്മദ് ബഷീർ മലയാളികളുടെ മനസ്സിൽ ഏറെ ഇടം പിടിച്ച ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ ഉൾപ്പടെ എല്ലാ മലയാളികളെയും ഏറെ ഏറെ രസിപ്പിച്ച ചിന്തിപ്പിച്ച ആസ്വദിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ രസിപ്പിക്കുന്നതും വളരെ ഏറെ ചിന്തിപ്പിക്കുന്നതും മനോഹരവും അദ്ദേഹത്തിൻ്റെ ഭാഷാ ഭാഷാരീതി തന്നെ വളരെയേറെ മൃദുലവും അർത്ഥപൂർവ്വവും ഉള്ള ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറെ എന്നെ ആസ്വദിപ്പിച്ചത് പാത്തുമ്മയുടെ ആട് എന്ന ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് എന്ന അദ്ദേഹത്തിൻ്റെ രചന വളരെ ഏറെ രസിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും നമുക്ക് വലിയൊരു പാഠം തന്നെ കാണിച്ചു തരുന്ന ഒരു രചനയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നു പറയുന്ന വ്യക്തി ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ചലിക്കുന്ന ഓരോ വാക്കുകളും ഏത് മനുഷ്യരേയും ചിന്തിപ്പിക്കുന്നതും ആസ്വദിപ്പിക്കുന്നതുമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ ഏത് മലയാളികളുടെയും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീർ അത്രമേൽ മലയാളികളെ ആ ആസ്വദിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി തന്നെ വളരെയേറെ രസകീയമായ രീതിയിലാണ് അദ്ദേഹം മലയാള എഴുത്തുകാരുടെ ഇടയിൽ വളരെ ഏറെ ഇടം വളരെയേറെ നല്ല രീതിയിൽ ഇടം പിടിച്ച ഒരു മഹാ സാദരം തന്നെയാണ്